ആ ഇത് കെ എസ് ആർ ടി സി ബസ് അല്ലേ എറണാകുളത്തെ അതെ അതേ ഞാൻ വിളിക്കുന്നത് മിൽ ആ ഞാൻ വിളിക്കുന്നത് മിൽബോ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണേ എൻ്റെ പേര് ഫ്രാൻസിസ് നാളത്തെ ആ നാളത്തെ ഏഴ് മണിക്കുള്ള ഫ്ലൈറ്റിന് പോവുന്നതിന് വേണ്ടിയേ ഞ ആ ബസ്സിന് പോവുന്നതിന് വേണ്ടിയേ ഞാൻ ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അത് അന്ന് എനിക്ക് കിട്ടിയ വേയ്റ്റ് വേയിറ്റിങ്ങ് ലിസ്റ്റ് അഞ്ചാണ് നമ്പർ അത് കിട്ടാൻ സാധ്യത വല്ലതും ഉണ്ടോ ആ ആ ആ

ഞാൻ നേരത്തേ വന്നിട്ടേ നേരത്തേ വന്ന് അവിടെ വെയിറ്റ് ചെയ്താൽ ഞാൻ ഇന്ന് തന്നെ അവിടെ എത്തുവാണെങ്കിലോ അതെ അല്ല ഞാൻ വ് എനിക്ക് എനിക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യം ആയിരുന്നേ ആ അല്ല മറ്റ് സാറേ മറ്റെന്തെങ്കിലും പ്രയോറിറ്റി തരാൻ സാധ്യത ഉണ്ടോ എനിക്ക് ഇന്നിവിടെ ഒരു കോടതിയിലൊരു കേസിന് അപ്പിയർ ചെയ്യണം എനിക്ക് എൻ്റെ കറക്റ്റ് ടൈം തന്നിട്ടുണ്ടേ അപ്പം അതിന് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെയും ഇത് നീണ്ട് നീണ്ട് പൊവുന്ന വർഷങ്ങളായി നടക്കുന്ന ഒരു കേസ് ആണ് സാറിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ അല്ലാ ബസ് തൊട്ട് പിന്നാലെ മറ്റേതെങ്കിലും സൂപ്പർ എക്സ്പ്രസ് വേണമെന്നില്ല മറ്റേതെങ്കിലും സു സാദാ ഓർഡിനറി ബസ് എങ്കിലും ഉണ്ടോ ഒരു ശേ ര അര മണിക്കൂർ കഴിഞ്ഞെങ്കിലൊത്ത് ആ ആ ആ വന്ന് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യട്ടെ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ സാർ നാളെ ഡ്യൂട്ടി ഉണ്ടോ രാവിലെ ഡ്യൂട്ടി ഉണ്ടോ ഉണ്ടോ ആ ഞാൻ എന്നാലേ ആ ഞാൻ എന്നാൽ ഇവിടുന്നേ ഇന്നത്തെ തന്നെ ബസ്സിന് ഞാൻ അങ്ങ് വരാം അപ്പം രാത്രി രണ്ടുമണിയോട് കൂടി ഒക്കെ അവിടെ എത്തും ഞാൻ ഏർളി മോർണിങ്ങിൽ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞാൻ സാറിനെ കോണ്ടാക്റ്റ് ചെയ്യാം ദയവായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണേ പ്ലീസ്

ആ ഓക്കെ സാറേ എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ് ഓർക്ക് എൻറെ ആ എൻ്റെ ആ ലിസ്റ്റിൽ പേരേ എൻ്റെ ലിസ്റ്റിലെ പേര് ഫ്രാൻസിസ് എന്നാണ് കേട്ടോ ഒന്ന് നോട്ട് ചെയ്താൽ ഉപകാരമായി വേണ്ട വേണ്ട വേണ്ട ആ ആ അത് മതി ആ അല്ല വല്ല എക്സ്ട്രാ പേയ്മെൻറേ ഈ റെയിൽവേയിൽ ഉള്ളത് മാതിരി എന്തെങ്കിലും എക്സ്ട്രാ പേയ്മെൻറ് വല്ലതും കൊടുത്തിട്ട് തലാക്കെന്തോ ഒരു ഒരു ഇടപാടുണ്ടല്ലോ അതായത് തത്ക്കാൽ തത്ക്കാൽ അല്ല തത്ക്കാൽ എന്നൊക്കെ പറയുന്ന ഒരു ഇടപാടുണ്ടല്ലോ റെയിൽ നമ്മുടെ ബസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഇടപാടുണ്ടോ ചെയ്യാൻ പറ്റുമോ ആ ആ ഓക്കെ ഓ ആ ആ ആ ശരി ആ എന്തായാലും ഞാൻ സ ആ ഓക്കെ ഞാൻ ഞാൻ കഴിയുന്ന വേ ഓക്കെ കഴിയുന്ന വെഗം ഞാൻ എത്തിക്കോളാം സാർ ഓക്കെ ശരി ആ ബൈ